മലയാള ഭാഷയില് വ്യാകരണത്തിനും ഉച്ചാരണത്തിനും വളരെയധികം പ്രാധാന്യമാണുള്ളത് ഉദാഹരണമായിട്ട് ഒരു വാക്ക് നമ്മള് വ്യഖ്യാനിക്കുകയാണെങ്കിൽ അതിനു പല അർത്ഥങ്ങളും ഉണ്ട് ഒരു ഇപ്പം ജലം എന്നത് പറയുന്ന ഒരു വാക്കെടുക്കാണെങ്കിൽ അതിൻ്റെ വാരി എ അതുപോലെത്തന്നെ ജലം വെള്ളം അങ്ങനെയുള്ള പല പല അർഥങ്ങൾ നമുക്കതിന് വ്യാഖ്യാനിക്കാൻ കഴിയും അതുപോലെതന്നെ ഇതിൻ്റെ ഉച്ചാരണം എന്ന് പറയാണെങ്കിൽ വെള്ളം വള്ളം ഇങ്ങനെയൊക്കെ പല രീതിയില് നമുക്കതിനെ ഉച്ചരിക്കാൻ പറ്റും അങ്ങനെ പല പല രീതിയില് നമുക്കിതിനെ ഉച്ചരിക്കുവാൻ കഴുയും എന്നത് നമ്മുടെ ഈ മലയാള ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്